ചേട്ടാ നമസ്ക്കാരം ഞാനേ വിളിച്ചത് എന്താച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറക്റ്റ് സമയത്താണ് ഡെലിവറി ആക്കിയത് പതിനൊന്ന് മണി ആകാറായപ്പോൾ കൃത്യമായിട്ട് പതിനൊന്ന് മണിക്ക് തന്നെ ഡെലിവറി നല്ല പക്കേജും കാര്യങ്ങളായിരുന്നു ആളുടെ പെരുമാറ്റവും കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ട്ടമായി അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണേ ഇപ്പം ഇനി നിങ്ങളൊക്കെ തന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ തരിക അതുപോലെ ഇതേപോലെ ഡെലിവറി കൃത്യസമയത്ത് തന്നെ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു